ഹലോ പറയൂ ആ പറയൂ പറയൂ ആ പറയൂ സാർ സാർ ഈ കോഫി ടീ അങ്ങനെ ആ ലക്ഷ്വറി അതോ നാടൻ ലോ അങ്ങനത്തെ ഒരു ആ മനസ്സിലായി അത് നോക്കുമ്പോൾ നമുക്ക് വയനാട് ആണ് ഏറ്റവും ബെറ്റർ ആയി തോന്നുന്നത് വയനാട്ടിൽ ആണ് നല്ല ആ ഓക്കെ ഇത് വയനാട്ടിൽ നല്ല തേയില തോട്ടങ്ങളുടെ ഒക്കെ ഇടയിൽ നമുക്ക് അങ്ങനത്തെ ചായ കടകൾ അങ്ങനെ ഒരു ആ താമസിക്കാൻ നമുക്ക് ട്രക്കിംഗ് നോക്കാം പിന്നെ താമസിക്കാൻ റിസോർട്ട് അങ്ങനത്തെ ഒക്കെ കൈകാര്യം ചെയ്യാം ആ ഒരു അല്ല പൈസ ഒക്കെ എത്ര ആണ് നോക്ക് ആ എന്നാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഒരു ചായക്കട സുകുവേട്ടൻ്റെ ചായക്കട ഉണ്ട് ഫേമസ് ആണ് നമുക്ക് ഗൂഗിളിൽ ഒക്കെ സെർച്ച് കേട്ടിട്ടില്ലേ ആ അവിടുത്തെ ആണ് അവിടെ നല്ല കാടും ട്രക്കിംഗ് അങ്ങനത്തെ പ്ലേസ് ഒക്കെയാണ് വൈബ് ആണ് വണ്ടി വണ്ടി നമുക്ക് എങ്ങനത്തെയാണ് സാർ വേണ്ടത് ജീപ്പ് മോഡൽ ആണോ ഹീറ്റർ താർ ഓക്കെ അതൊക്കെ സെറ്റാണ് നല്ല നൈസ് ടീയും കുടിച്ച് നമുക്ക് ഓക്കെ അപ്പോൾ എത്ര പേർ ഉണ്ട് എത്ര പേർ ഉണ്ട് അഞ്ച് പേർ അല്ലേ ആ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിൽ റിസോർട്ട് വേണോ അങ്ങനെ ആ ആയിക്കോട്ടെ അപ്പോൾ സുകുവേട്ടൻ്റെ ചായക്കട ഫിക്സ് അല്ലേ അപ്പോൾ എന്നായിരിക്കും വരുക ആ ആ സമയം നല്ല തണുപ്പ് ആയിരിക്കും നല്ല ഷട്ടറും കാര്യങ്ങൾ ഷട്ടറും കാര്യങ്ങൾ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങാം കരുതിക്കോളൂ ആ ആ അത് വായനാട്ടിൽ വന്നിട്ടുണ്ടോ ആ എന്നാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ഈ ആ ഫുൾ ഈ ഒരു ഏക്കർ അല്ലെങ്കിൽ കുറേ ഏക്കർ കണക്കിന് തേയില തോട്ടം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചായക്കട ഉണ്ട് പിന്നെ സുകുവേട്ടൻ്റെ ചായക്കട അപ്പോൾ സ്പെഷ്യൽ പിന്നെ ലക്ഷ്വറി ജാഗ്വാർ ഡെയിലി എല്ലാ ടൈപ്പ് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് ഒക്കെ നോക്കാം കോഫി ഓക്കെ ഓക്കെ ലോക്കൽ ഈ ബാറിൻ്റെ അല്ല ലോക്കൽ തട്ടുകടേൻ്റെ ഒക്കെ അടുത്ത് ഉള്ള ചായക്കട ഓക്കെ ആ ആയിക്കോട്ടെ ആ ആ എന്നാൽ ശരി